ഒരു ഹോബിയും കളിയും പോലെതന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ ആവുകയുള്ളൂ നമ്മൾ പുസ്തകത്തിലും അതേപോലെതന്നെ വീഡിയോകളിലും കാണുന്നതിലും ഉപരി നമുക്ക് നേരിട്ട് പോയി സന്ദർശിച്ച് അവിടുത്തെ ആളുകളും ആളുകളുമായി പരിചയപ്പെട്ട് അവിടെ താമസിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പോയിരുന്ന ഒരു സ്ഥലമാണ് ജമ്മു ആൻഡ് കാശ്മീർ അവിടെ പോയപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ജമ്മു ആൻഡ് കശ്മീർ എന്ന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഭീതിയാണ് അത് എന്തെന്നാൽ അവിടെ നടക്കുന്ന ഓരോ പ്രശ്നം കാരണമാണ് എന്നാൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് അവിടെ നമ്മൾ ഈ ന്യൂസിലും അതേപോലെ മറ്റു പത്രങ്ങളിലും കാണുന്നത് കാണുന്നതും കേൾക്കുന്നതും പോലെയല്ല അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നതിലും വളരെ വ്യത്യസമായിട്ടുള്ള കാര്യങ്ങളാണ് നേരിട്ട് പോവുമ്പോൾ ചില കാര്യങ്ങൾ നേരിട്ട് പോയാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ അവിടെ വളരെയധികം നല്ല സ്ഥലങ്ങളുമുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ നമുക്ക് തരുന്ന കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതേപോലെതന്നെ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം എന്നു പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്